ഞാന് എനിക്ക് മെയിൻ ആയിട്ട് പണ്ടുമുതലേ ചെറുപ്പം മുതലേ കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് ക്രിക്കറ്റ് കളിയും പിന്നെ ഫുട്ബോൾ കളിക്കുമായിരുന്നു ഫുട്ബോൾ കളി ഇപ്പോൾ അങ്ങനെ കളിക്കുന്നില്ല കാരണം അത്യാവശ്യം കാലിനൊക്കെ ചെറിയ ഒരു എന്താ പറയുക വയ്യ അല്ലെങ്കിൽ ചെറിയ ഒരു പണിയൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുട്ബോൾ ഇപ്പോൾ അങ്ങനെ കളിക്കുന്നില്ല അന്ന് കളിച്ച് കളിച്ച് ഉള്ളത് കൊണ്ടുതന്നെയാണ് കിട്ടിയത് കളിച്ചിട്ട് കാലിൻ്റെ വിരല് ഒടിഞ്ഞു അപ്പോൾ പിന്നെ പിന്നെ ഫുട്ബോൾ കാണും അത്യാവശ്യം കളിക്കാനും ഓടാനും അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്യും ഇപ്പോൾ കൂടുതലായിട്ട് കളിക്കാൻ താല്പര്യമുള്ളത് ക്രിക്കറ്റ് തന്നെയാണ് ക്രിക്കറ്റ് ഇപ്പോഴും ഞാൻ കളിക്കുന്നുണ്ട് ഈ വയസിലും ഞാന് അത്യാവശ്യം നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ട് കളിച്ച് വന്നത്തിൻ്റെ അനുഭവ സമ്പത്താണെന്ന് വേണേൽ പറയാം പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾടെ മുൻപ്പ് എന്ന് പറയുമ്പോൾ പാടത്ത് കാര്യങ്ങളിലൊക്കെയാണ് കളിച്ചിരുന്നെ ഇപ്പോൾ പാടം ഫുൾ ടൈം കൃഷിയും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് പാടത്ത് കളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു കുന്നുപ്രദേശം ഉണ്ടായിരുന്നു കുന്ന്പ്രദേശം അല്ല ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരു ഗ്രൗണ്ട് അത്രയും വലുപ്പമുള്ള നാലഞ്ച് ഏക്കർ സ്ഥലം തന്നെയാണ് അത് അപ്പോൾ അതിൻ്റെ താഴ്വാരത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുട്ടികൾ ഒപ്പം വരുമ്പോൾ കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ അവരോടൊപ്പം കളിക്കും അവർക്ക് അത്യാവശ്യം ബോളും ബാറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും അങ്ങനയാണ് ഇപ്പോൾ ഞാന് സമയം ചിലവാക്കുന്നത്